പഴയകാല മാധ്യമം എന്ന് പറയുന്നത് വളരെ വിലപടിപ്പുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ടി വി റേഡിയോ ഒക്കെ ആയിരുന്നു അത് നമ്മൾ ചാനല് ഒക്കെ ഉപയോഗിച്ചുള്ള ടി വി യായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത് അതിന് വളരെ വിലയായിരുന്നു ഗ്രെയിൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും കിട്ടാനൊക്കെ വളരെ വിഷമമായിരുന്നു എന്നാൽ നവമാധ്യമം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും കേബിൾ ടി വി കളായി മൊബൈൽ ഫോണുകളായി ഫേസ്ബുക്ക് ആയി യൂട്യൂബ് ആയി അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും അത് വളരെ ആൾക്കാർക്ക് വളരെ സ്വീകാര്യമായി പെട്ടെന്ന് കിട്ടുന്നതുപോലെയായി ഏത് വാർത്ത ഏത് എത്ര പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് ലഭിക്കും സത്യസന്ധമായ വാർത്ത നമുക്ക് ഇപ്പം ഇഴിച്ചുകൂടെ കൂടുതൽ കിട്ടാൻ തുടങ്ങിയത് ഇപ്പോഴാണെന്ന് പറയാം വളരെ എളുപ്പം കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങി പണ്ട് നമുക്ക് ആഴ്ചകളോളം ഒക്കെ കഴിഞ്ഞിട്ടാണ് വാർത്തകൾ പത്രത്തിൽക്കൂടെയൊക്കെ വന്ന് കൊണ്ടിരുന്നത് ഇന്ന് അത് അതുപോലെതന്നെ ടി വി യിലൊക്കെ വരുന്നതും ഒരാൾ പിടിച്ച് അത് കൊണ്ടുപോയി സ്റ്റുഡിയോയിലൊക്കെ കൊടുത്തായിരുന്നു ഡൗ ഇന്നിപ്പം ഫേസ്ബുക്കും വാട്സ്ആപ്പും അങ്ങനെയുള്ള യൂട്യൂബൊക്കെ ഉള്ളത്കൊണ്ട് അന്നേരം തന്നെ നമുക്ക് വാർത്തകൾ കിട്ടുന്നു പിന്നെ തെറ്റായിട്ടുള്ള വാർത്തകളോ ഫെയ്ക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെത്തന്നെ വന്ന് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് അന്നേരം തന്നെ നമുക്ക് അറിയുകയും അതിൻ്റെ സത്യാവസ്ഥ നമ്മുക്ക് മറ്റ് ചാനലുകൾ വഴി അന്നേരം തന്നെ നമുക്ക് അത് തിരിച്ചറിയാം കാരണം ചില ആശയങ്ങളോടൊക്കെ ചായ്വുകളുള്ള ചാനലുകളും വാർത്തകളും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് അത് തെറ്റായി പ്രചരിപ്പിക്കാറുണ്ട് പക്ഷെ ഇന്ന് നവമാധ്യമവും എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് ആ വാർത്ത തെറ്റാണ് എന്നും അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം ഇതാണ് എന്ന രീതിയിൽ നമ്മളെ അറിയിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ പണ്ടൊരു യുദ്ധം ഒക്കെ നടക്കുകയാണെങ്കിൽ യുദ്ധം നടക്കുന്നു അവിടെ ആൾക്കാർ മരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞേ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ഇപ്പം ഇസ്രായേലിലും ഗാസയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ പത്രത്തിൽക്കൂടെയൊക്കെ എന്നാ പറയുന്നത് അത് വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പം അല്ല അത് ഭീകരാക്രമണമാണ് എന്ന് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ അനുസരിച്ച് അത് റിപ്പോർട്ടുകളൊക്കെ തന്ന് നമുക്ക് അറിയാൻ പറ്റും ഉദാഹരണമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം ഒക്കെ കൂട്ടി ചില വാർത്തകൾ ആദ്യമേ ചാനല് കൊടുക്കുന്നു അത് പിന്നീട് ഫെയ്ക്ക് ആയിരുന്നെന്നും അത് കൃത്യമമായിട്ട് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ ബാക്കി മാധ്യമങ്ങളൊക്കെ അത് കണ്ടുപിടിച്ച് അവിടുള്ള ലോക്കൽ ആൾക്കാരും ഒക്കെ അത് കണ്ടുപിടിച്ച് അത് നമുക്ക് അങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിലൊരു ഒരു സംഭവം ഉണ്ടായാലന്ന് പുറംലോകത്തെ അറിയിക്കാൻ വളരെ ചിലവ് കുറഞ്ഞ ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ നവമാധ്യമം നമുക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാം അത് ഈടുള്ള വാർത്തയാണെങ്കിൽ പെട്ടെന്ന് ലോകം മുഴുവൻ വ്യാപിക്കും ഒരുപാട് പേരത് കാണും കൂടുതൽ പേരത് വീണ്ടും ഷെയറ് ചെയ്യും അങ്ങനെ ജനങ്ങളിലേക്ക് അത് എത്തും അതുകൊണ്ട് തന്നെ പഴയ മാധ്യമങ്ങളെക്കാട്ടിലും പുതിയ നവമാധ്യമങ്ങളാണ് ജനങ്ങൾക്ക് പെട്ടെന്ന് വാർത്ത അറിയാനും അതിൻ്റെ സത്യസന്ധമായ ഉള്ളടക്കങ്ങൾ അറിയാനും അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അതുകൊണ്ട് ഭാവിയിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒക്കെയുള്ള പെട്ടെന്ന് ഒള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സ്പീഡിൽ അറിയാൻ പറ്റും നമുക്ക് തന്നെ അറിയാം ഇന്ന് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ കള്ളത്തരങ്ങളായിട്ട് പറഞ്ഞ് തെറ്റായിട്ടാണ് പണ്ട് ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മതങ്ങളുടെ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ചില മതങ്ങളൊക്കെ തങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ പഠപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പം നമുക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതല്ല അങ്ങനെയല്ല അവർ പറയുന്നത് നുണയാണ് എന്നുള്ള കാര്യം നമുക്ക് അത് അറിയാൻ പറ്റും കാരണം മറ്റുള്ളവരുടെ ഇതിനെക്കുറിച്ചുള്ള പ്രസ്ഥാനങ്ങളും അത് തെറ്റാണെന്നും അവർ തെറ്റായിട്ട് പറഞ്ഞതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് അവിടെ നമുക്ക് അവിടെ അറിയാൻ പറ്റും അതുപോലെത്തന്നെ രാഷ്ട്രീയക്കാർ ചില തെറ്റായിട്ടുള്ള പ്രവണതകൾ ഞങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കയ്യടി വാങ്ങിക്കുന്ന പതിവായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നും നമുക്ക് അറിയുവാനും ജനങ്ങൾക്ക് അറിയുവാനും ഒക്കെ ഉള്ള അവകാശങ്ങളുണ്ട് നമുക്കറിയാം വന്യജീവി അക്രമങ്ങളൊക്കെ നാട്ടിലിങ്ങനെ പെരുകുമ്പോൾ അത് ആ ദിവസം തന്നെ നമ്മളറിയുകയും അതിനെതിരെ സർക്കാർ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു കൊല്ലവും രണ്ട് കൊല്ലവും ഒക്കെ കഴിയുമ്പോഴും അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കത് മറന്ന് പോകാതെ അറിയിക്കാൻ ഈ നവമാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെ ഒക്കെ തെറ്റായിട്ടുള്ള നയങ്ങളെ അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ജനങ്ങൾക്ക് സത്യസന്ധത അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും മോശമാണെങ്കിൽ മോശമാണെന്നും നൂറ് ശതമാനം ഉറപ്പോടെ പുതിയ മാധ്യമങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മുക്ക് പിന്നീട് നാടിന് വേണ്ട ആവശ്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഈ നവമാധ്യമങ്ങിൽ കൂടി നമുക്ക് ഭർണാധികരികളെയും മറ്റുള്ളവരെയൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റുന്നുണ്ട് പണ്ട് അതിനുള്ള ഒരു സാധ്യത വളരെ ചിലവേറിയതായിരുന്നു അങ്ങനെ അറിയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജനങ്ങളിലേക്ക് എത്തുകയില്ലായിരുന്നു ഇന്ന് ആ വക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ പഴയ മാധ്യമങ്ങളെ വെച്ച് നോക്കുമ്പോൾ പുതിയ മാധ്യമം നല്ലതാണ് എല്ലാവർക്കും സ്വീകാര്യമാണ് എല്ലാവർക്കും അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം